നമ്മുടെ ജില്ലയിലെ ഏറ്റവും വലിയ ഒരു നല്ല കാര്യം എന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റു ജില്ലയിൽനിന്നും ഒത്തിരി കുട്ടികൾ തൊഴിൽ അവസരങ്ങൾ തൊഴിലിനു വേണ്ടിയും തൊഴിൽ അനുഷ്ഠിത കോഴ്സുകൾ പഠിക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ ജില്ലയെ ജില്ലയിൽ വരുന്നുണ്ട് എന്നുള്ളത് വളരെ ഒരു നല്ലൊരു പോസിറ്റീവ് കാര്യമായിട്ടാണ് എനിക്ക് തോന്നാറ് കാരണം നല്ല ഫെസിലിറ്റീസും നല്ല വിദ്യാഭ്യാസവും നല്ലൊരു കോളേജും നല്ല അതിനെക്കുറിച്ച് കുറിച്ചുള്ള ബാഗ്രൗണ്ടും നല്ലതായത് കൊണ്ട് ആയിരിക്കുമല്ലോ മറ്റു ജില്ലയിൽ നിന്നും കുട്ടികൾ പോലും നമ്മുടെ ജില്ലയിൽ വന്ന് പഠിക്കുന്നത് അപ്പോൾ അതില് ഗവൺമെൻറ് എൻജിനീയറിംഗ് കോളേജ് പറയത്തക്ക നല്ല രീതിയിലുള്ള ഒരു കോളേജ് ആണ് പഠനത്തിൻ്റെ കാര്യത്തിലും എല്ലാ കാര്യത്തിലും ഒരു മികവിൽ നിൽക്കുന്ന ഒരു കോളേജാണ് ഗവൺമെൻറ് എഞ്ചിനീയറിങ് കോളേജ് അതേപോലെത്തന്നെ മലബാർ ക്രിസ്ത്യൻ കോളേജ് ഉണ്ട് ഇൻസ്റ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ് ഉണ്ട് പിന്നെ നമുക്ക് പഠിക്കാൻ എൻട്രൻസ് കോച്ചിംഗ് സെൻററുകൾ ഉണ്ട് ടൈപ്പ് സെന്ററുകൾ ഉണ്ട് പിന്നെ കോച്ചിംഗ് ക്ലാസുകൾ ഉണ്ട് പി എസ് സി ക്ലാസുകൾ ഉണ്ട് പിന്നെ റിക്രൂട്ട്മെൻറ് ഒക്കെ കൂടുതലും നമുക്ക് വിളിക്കുന്നത് കോഴിക്കോട് ഭാഗത്ത് കോഴിക്കോടിലേക്കാണ് കൂടുതലും വിളിക്കുന്നത് തൊഴിൽ അനുഷ്ടിത കോഴ്സുകൾ പലതും ഉണ്ട് ഫാഷൻ ഡിസൈനിങ് തൊട്ട് ഒത്തിരി തൊഴിൽ അനുഷ്ഠിത കോഴ്സുകൾ ഉണ്ട് അതിലൊക്കെ ഭാഗമാകാൻ ഒത്തിരി ആൾക്കാരും വരുന്നുണ്ട് പിന്നെ ദേവഗിരി കോളേജ് ഇപ്പോൾ ഞങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് പുറത്ത് വേറെ ജില്ലയിൽ നിന്നൊക്കെ ഒത്തിരി കുട്ടികള് വന്നിട്ട് ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിക്കുമായിരുന്നു റെന്റിന് വീടെടുത്തിട്ടൊക്കെ പിന്നെ നമ്മുടെ ഇതുണ്ടല്ലോ സിവിൽ ആ ഒരു ഇതില് വേണ്ടിയിട്ട് നമ്മുടെ പോളിടെക്നിക്കിനു വേണ്ടിയിട്ട് എത്ര പേര് എൻ്റെ അനിയനൊക്കെ അനിയൻ ഒക്കെ പഠിക്കുന്ന സമയത്ത് അനിയൻ്റെ ക്ലാസ്സിൽ അവൻ്റെ ഫ്രണ്ട്സ് ഒക്കെ വേറെ ജില്ലയിൽ നിന്നുള്ളവരായിരുന്നു അപ്പോൾ അവരും നല്ല നല്ല ഫെസിലിറ്റി നല്ല കോളേജ് നല്ല ഇൻസ്റ്റ്യൂട്ട് ഒക്കെ ആയതുകൊണ്ടല്ലേ നമ്മുടെ നമ്മുടെ ജില്ലയെ സമീപിക്കുന്നത് അപ്പോൾ നല്ല നല്ല അവസരങ്ങളുണ്ട് പഠിക്കണം എന്നുള്ളവർക്ക് നല്ല നല്ല അവസരങ്ങൾ ഉണ്ട്